എവിടെ നിന്നാണ് വിളിക്കുന്നത് ആലപ്പുഴയിൽ നിന്നോ ആ പറഞ്ഞോ പേര് എങ്ങനെയാണ് അതിനെന്താണ് എന്താണ് അറിയേണ്ടത് ഞാൻ ഞാൻ ഇവിടെ ഞാൻ ഇവിടെ ഞാൻ തടിയുടെ ഡീലറാണ് ഇവിടെ ഞാൻ ആ കൂപ്പിയിൽ നിന്നും എനിക്ക് എല്ലാ എനിക്ക് എല്ലാമുണ്ട് ഞാൻ മറ്റേ ഫോറെസ്റ്റിൻ്റെ തടി ഉൾപ്പെടെ അപ്പം എല്ലാ ഫസ്റ്റ് ക്വാളിറ്റി ഫസ്റ്റ് ചെയ്തു തടികളും ഒക്കെ ഇവിടെ എൻ്റെ ഗോഡൗൺ എൻ്റെ മില്ലിൽ ഇറക്കിയിട്ടിട്ടുണ്ട് ആവശ്യാനുസരണം തടിയായിട്ട് വിൽക്കും തടി ഉരുപ്പടിയായിട്ട് വിൽക്കും ഫർണീച്ചറായിട്ട് വിൽക്കും താങ്കൾക്ക് എന്താണ് ഉരുളുമായിട്ടും കിട്ടും ഉരുൾ ഏത് ഏത് അളവിലാണെങ്കിലും അറുത്ത് തരും നിങ്ങൾക്ക് എന്തിനാണ് വേണ്ടത് ഫർണിച്ചറിനാണോ കട്ടിളയ്ക്കാണോ നിങ്ങൾക്ക് വീടു പണിയ്ക്കുള്ള കട്ടിളയും ജനലുമാണോ വേണ്ടത് അതോ ഫർണിച്ചറാണോ

എത്ര തടിയാണ് വേണ്ടത് നിങ്ങൾക്ക് അപ്പം അത് അത് ആഞ്ഞിലി എത്ര സീയെഫ്റ്റിയാണ് വേണ്ടത് അല്ല അത് നമക്ക് ന്യായമായി ന്യായമായി ന്യായമായി ന്യായമായിട്ട് ചെയ്യാം നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ എത്ര കട്ടിള ജനൽ വേണം ഫ്രണ്ടിൽ ഫ്രണ്ടിൽ ഡോറ് മാത്രം തേക്ക് മതിയോ അപ്പം എത്ര വിൻറ്റോ ആണ് എത്ര അത് എത്ര പാളി വിൻറ്റോ ആണ് എന്ന് ഉള്ള ഒരു കണക്കും മൊത്ത ആ ഡോറിൻ്റെ കണക്കും അത് ഡോറ് മറ്റേ സാധാ ആണോ ആറ് ഇഞ്ചാണോ എട്ട് ഇഞ്ച് ഒമ്പത് ഇഞ്ചിൻ്റെ ഡോറാണോ വേണ്ടേ ഈ ആ ഓക്കെ അതിൻ്റെ അതെ അതേ ചാംസ് അല്ല നിങ്ങൾ ഞങ്ങൾ സാധനം എത്തിച്ചു തരാന്നറഞ്ഞാ നിങ്ങൾ വന്നു സാധനം കണ്ടു ഈ ഉരുൾ കണ്ടു സാറ്റിസ്ഫൈ ചെയ്യാം എത്ര സിയെഫ്റ്റിയാണ് അല്ല അതാണ് അപ്പോൾ അപ്പോൾ റേറ്റ് വ്യത്യാസമാണ് ഉരുളായിട്ട് വരുമ്പം ഉള്ള റേറ്റ് ആയിരിക്കത്തില്ല സി എഫ് റ്റി റേറ്റ് ആയിരിക്കുകയില്ല ഉരുപ്പടി ആയിട്ട് തരുമ്പം അല്ലല്ല നിങ്ങൾക്ക് നിങ്ങക്ക് ഉരുപ്പടി ആയിട്ട് പറഞ്ഞില്ലേ കാട്ടും കട്ട്ളയോടെ ആയിട്ട് വരുമ്പം ആ ഒരു അതിൻ്റെ സിഎഫ്റ്റിയ്ക്കൂ റേറ്റ് ആ ഉരുളായിട്ട് വരുമ്പം അതിൻ്റെ സി എഫ് ആ ഈ കട്ടിള ജനലിൻ്റെ ഉരുപ്പടി ആയിട്ട് വരുമ്പോഴുള്ള റേയ്റ്റ് ആയിരിക്കത്തില്ല ഉരുളായിട്ട് ഉരുൾ ആയിട്ട് എടുക്കുമ്പം കുറവായിരിക്കും വെള്ള വുഡ്ഡ് വെള്ളാ ഇല്ലാതെയും വരും ചെറിയ പറ്റ് വെള്ളയൊക്കെ കാണുമായിരിക്കും പറ്റ് വെള്ള ഇല്ലാതെ തീർത്ത് തീർത്ത് തരണമെങ്കിൽ അപ്പം റേറ്റ് മാറും അപ്പോൾ അതും കുഴപ്പമില്ല നിങ്ങൾ നിങ്ങൾ വെള്ള ഇല്ലാതെ തടി തരാം പക്ഷേ അത് അനുസരിച്ച് റേറ്റ് വ്യത്യാസം വരും റേറ്റ് വ്യത്യാസം വരും റേറ്റ് വ്യത്യാസം വരും വരും അപ്പോൾ ഒരു കാര്യം നേരിട്ട് കാണാം ഓക്കെ ആ മോനേ